ഒരുപാട് നേരമൊന്നും ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല പിന്നെ അത്യാവശ്യ സാഹചര്യം മാത്രം ഫോണ് ഉപയോഗിക്കുന്നുള്ളൂ അതുപോലെ നമ്മുടെ ഓരോരുത്തർ വിളിക്കാനായാലും ഞാൻ അതിന് അത്യാവശ്യമായിട്ട് മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ അല്ലാതെ എപ്പഴും ഞാൻ റൂമിനകത്ത് നിൽക്കുമ്പോഴും കിച്ചണിനകത്ത് നിൽക്കുമ്പോഴും ഒന്നും ഫോണ് ഒരുപാട് നേരമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പം അത്യാവശ്യം സർവീസ്സ് മാത്രം എന്തെങ്കിലും ഹോസ്പിറ്റ്ല് കേസ് വണ്ടി വിളിക്കാനായാലും ഒരു ഹോസ്പിറ്റല് കേസുണ്ടെങ്കിലും അങ്ങനെയെങ്ങാനും ഒന്നു ഫോണ് ഉപയോഗിക്കത്തതേ ഉള്ളൂ ആ രീതീയിലാണ് ഞാൻ ഫോണ് എടുക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് കൈകാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പഴും ഞാൻ ഫോണ് എടുക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കു മാത്രം ഫോണ് എടുത്ത് സംസാരിക്കും അതേ ഉള്ളൂ